വയനാട് ജില്ലയിലെ എല്ലാ സ്കൂളുകളും മികച്ച സ്കൂളുകൾസാണ് പ്രൈവറ്റ് സ്കൂളും ഉണ്ട് ഗവൺമെന്റ് സ്കൂൾസുണ്ട് പ്രൈവറ്റ് സ്കൂൾസ് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീസ് കൊടുത്ത് പഠിക്കുന്നൊരു ക്ലാസ്സ് ക്ലാസസ്സാണ് അവിടെ ഫുഡ്ഡ് ഒന്നും ലഭ്യമല്ല എന്നാൽ ഗവൺമെന്റ് സ്കൂളിലേക്ക് വരുമ്പോഴേക്കും അവിടെ കുട്ടികൾക്ക് ഒന്ന് തൊട്ടു പത്ത് വരെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാവർക്കും സൗജന്യമായ വിദ്യാഭ്യാസമുണ്ട് ഫീസ് കൊടുക്കാണ്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നുണ്ട് അതുപോലെതന്നെ അവർക്കു ഫുഡ്ഡ് ലഭ്യമാണ് എല്ലാ പ്രൈവറ്റ് സ്കൂളിൽ കിട്ടുന്നത് പോലെതന്നെ അവർക്ക് തുല്യ പരിഗണന ആ ഗവൺമെന്റ് സ്കൂളിൽ കിട്ടുന്നുണ്ട് അതുപോലെതന്നെ യൂണിഫോം കാര്യങ്ങളിലാണെങ്കിലും പ്രൈവറ്റ് സ്കൂളിൽ നമ്മൾ തന്നെ പൈസ കൊടുത്തു നമ്മൾ തന്നെ തയ്പ്പിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാൽ ഗവൺമെന്റ് സ്കൂളിലേക്ക് വരുമ്പോഴേക്കും യൂണിഫോമൊക്കെ സൗജന്യമായി എല്ലാ കുട്ടികൾക്കും തുല്യമായി ലഭിക്കുന്നുണ്ട് ഇതൊക്കെയാണ് സർക്കാർ സ്കൂൾസിൻ്റെയും പ്രൈവറ്റ് സ്കൂൾസിൻ്റെയും വ്യത്യാസങ്ങൾ പിന്നെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ക്ലാസുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ ഒരു വിദ്യ ക്ലാസസ്സ് എന്നു പറഞ്ഞ ഒരിതുണ്ട് അത് എൻട്രൻസ് കോച്ചിങ്ങിനു ട്രെയിനിങ്ങ് നൽകുന്ന ക്ലാസസ്സാണ് അതാണ് ഇവിടുത്തെ ക്ലാസസ്സൊക്കെ പിന്നെ വയനാട് ജില്ലയിലെ എല്ലാ സ്കൂളുകളും മികച്ചതാണെങ്കിലും പ്രൈവറ്റ് സ്കൂളിനേക്കാട്ടും കുറച്ചുകൂടി മികച്ചതിപ്പം ഗവൺമെന്റ് സ്കൂൾസ് ആണ് കാരണം ഗവൺമെന്റ് സ്കൂൾസിൻ്റെ ഓരോരോ മികച്ച മികച്ച കാര്യങ്ങളൊക്കെ കേട്ട് അവിടുത്തെ വിദ്യാർത്ഥിനികളിപ്പം എല്ലാ വിദ്യാർത്ഥികളും കൂടുതലായിട്ട് വരുന്നത് വിദ്യാർത്ഥികളുടെ എണ്ണങ്ങളൊക്കെ കൂടുതൽ വരുന്നത് ഗവൺമെന്റ്സ് ഗവൺമെന്റ് സ്കൂൾസ്സിലേക്കാണ് അവിടത്തേക്ക് കൂടുതൽ കുട്ടികളിപ്പം അങ്ങോട്ടുതന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രൈവറ്റ് സ്കൂളിൽനിന്നു മാറി എല്ലാവരും ഗവൺമെന്റ് സ്കൂൾസ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പുരോഗതികൾ മെച്ചപ്പെടുത്തുന്നതുകൊണ്ട്